ആ നമ്മുടെ ഈ ടെക്നോളജിയുടെ വളർച്ച വളർച്ച വളരെ അധികം നമ്മളെ ഈ ലോകത്തോട് കണക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതായത് പണ്ട് സാമൂഹിക മാധ്യമം അല്ലേ സോഷ്യൽ മീഡ്യാന്ന് പറയുന്ന സംഭവത്തിന്റെ വളർച്ച ഈ നമ്മളുടെ പല പല കാര്യങ്ങൾക്കും പല വിവരങ്ങളും വളരെ പെട്ടന്ന് തന്നെ ഒരിടത്തുന്ന് മറ്റൊരിടത്ത് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതായത് നേരത്തെ ഈ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജെൻസ്സ് വരുന്നതിന്റെ മുന്ന് മുമ്പേ നമുക്ക് ഒരു കാര്യം അറിയണം എങ്കിൽ നമ്മൾ ഗൂഗിളിൻറ്റെ സഹായത്തോട് കൂടി അതിനെ സെർച്ച് ചെയ്ത് നോക്കി അത് കണ്ട് പിന്നെ കുറെ അധികം വെബ്സൈറ്റ്കൾ ലിങ്ക്കൾ എന്നിവയിലോട്ട് ഒക്കെ ചെന്ന് നമ്മൾ ഓരോ കാര്യം വായിച്ച് മനസ്സിലാക്കി വിവരങ്ങൾ സീകരിക്കുക എന്നുള്ളത് ആണ് ഈ എ ഐ വരുന്നതിന്റെ മുമ്പ് നമുക്ക് വിവരങ്ങൾ അറിയാൻ ഉണ്ടായിരുന്ന ഏറ്റോം വലിയ ഒരു സ്രോതസ്സ് എന്ന് പറയുന്നത് വിക്കിപ്പീഡ്യാരുന്നു വിക്കിപ്പീഡ്യേൽ വിക്കിപ്പീഡ്യായിൽ ലഭിക്കുന്ന വിവരങ്ങൾ ആയിരുന്നു നേരത്തെ എല്ലാവരും തന്നെ അത് ഏറ്റോം കൂടുതൽ ഉപയോഗിച്ചോണ്ടിരുന്നത് വിക്കിപ്പീഡ്യാ ആൾക്കാർ ഉപയോഗിക്കാൻ ആൾക്കാരുടെ വിശ്വാസം പറ്റിപ്പിടിച്ച് ഒരു ഏറ്റോം വലിയ സൈറ്റാര്ന്നു പക്ഷേ പക്ഷേ ഏ വി വന്നതിന് ശേഷം വിക്കിപ്പീഡ്യേ വളരെ വലിയ നഷ്ടത്തിലോട്ട് പോയി കൊണ്ടിരിക്കുക ആണ് ഇപ്പം വിക്കിപ്പീഡിയ അവർ സർവൈവെ ചെയ്യാൻ വേണ്ടി അവർ ഫണ്ട്കൾ ആൾക്കാരിപ്പം ശേഖരിച്ചോണ്ടിരിക്കാണ് വിക്കിപ്പീഡ്യ സൗജന്യമായി വിവരം വിവരങ്ങൾ കൊടുത്ത് കൊണ്ടിരുന്നത് ഏറ്റോം വലിയ വെബ്സൈറ്റാരുന്നു പക്ഷേ ഈ ഏ ഐ വന്ന് ഏ ഐടെ ഏ ഐ വന്ന് എ ഐ വന്ന് ആൾക്കാർ എ ഐയുടെ ഉപയോഗം കൂടിയപ്പോഴത്തേക്കും വിക്കിപ്പീഡ്യേ വന്ന് വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഉപയോഗിച്ച് കൊണ്ടിരുന്ന് ഉപയോഗിച്ച് കൊണ്ടിരുന്നത് ആൾക്കാരുടെ എണ്ണത്തിൽ വളരെ അധികം കുറവ് കാണപ്പെടുന്നുണ്ട് അതിനാൽ അതുകൊണ്ട് തന്നെ വിക്കിപ്പീഡ്യ ഇപ്പം വലിയ ഒരു സാമ്പത്തിക ബാധ്യതേക്കൂടെ കടന്നോണ്ട് കടന്ന് പോയി കൊണ്ടിരിക്കുക ആണ് എ ഐക്ക് എ ഐ വന്നതിന് ശേഷം അത് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡ്യ വളർന്നതിന് ശേഷം നമുക്ക് ഇപ്പം നമ്മുടെ പുറത്തിരിക്കുന്ന ഒരു സുഹൃത്തിനേ കാണുവോ സംസാരിക്കുവോ ചെയ്യണം എങ്കിൽ നമുക്ക് വേണം എങ്കിൽ വീഡ്യോ ക്കോൾ എന്നൊരു മാർഗ്ഗത്തിലൂടെ അവരെ നേരിട്ട് കണ്ടോണ്ട് സംസാരിക്കാം നേരത്തെ പണ്ട് കാലത്ത് ഇപ്പം നമ്മുടെ ഒരു സുഹൃത്തോ അല്ലേ നമ്മുടെ ഒരു ബന്ധു ഒരാൾ പുറത്ത് രാജ്യത്തിന് പുറത്ത് വേറെ ഒരു രാജ്യത്ത് ചെന്ന് അല്ലേ വേറെ ഒരു സംസ്ഥാനത്തോട്ട് എന്തേലും ജോലി ആവശ്യങ്ങൾക്കോ പഠനസ പഠന ആവശ്യങ്ങൾക്കോ വേണ്ടി പോയെങ്കിൽ നമ്മൾ അതേ ആ ആൾ തിരിച്ച് വരുന്ന വരെ നമുക്ക് ആ ആളുടെ കാണാൻ പറ്റുന്ന പറ്റത്തില്ലായിരുന്നു പക്ഷേ ഈ സോഷ്യൽ മീഡ്യ അല്ലങ്കിൽ സാമൂഹിക മാധ്യമത്തിന്റെ വളർച്ച വളർച്ച കൊണ്ട് ഇപ്പം നമ്മൾ ഇന്ന് എത്ര ദൂരെ ഇരിക്കുന്ന ആളേം നമുക്ക് ഒരു വീഡ്യോ ക്കോളി നിന്ന് കാണാം അവർ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം ഒരിക്കലും അവർ നമ്മുടെ അടുത്തുള്ള പോലെ ആയിരിക്കത്തില്ല വീഡ്യോ ക്കോള് വഴി കാണുമ്പോൾ പക്ഷേ അന്നെങ്കിലും നമുക്ക് അവരുടെ മുഖം ഒന്ന് കണ്ടത് ഓർത്ത് സന്തോഷിക്കാം ഇനീം നമ്മുടെ ടെക്നോളജി വളരും വളരുന്നതിന് അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് അവരേ ദൂരേന്ന് അവർ നമ്മുടെ അടുത്തുള്ള പോലെ തോന്നി കണ്ട് സംസാരിക്കാൻ ഉള്ള സാധ്യതകളും വളരെ അധികം കൂട് കൂടും കൂടാൻ പോവുകയാണ് കാരണം ഈ വളരുന്ന വളരുന്ന ടെക്നോളോജിക്കൽ സമയത്ത് നമുക്ക് വളരെ അധികം വേറെ വളരെ അധികം അവസരങ്ങൾ ടെക്നോളോജിക്കൽ ടെക്നോളജി കൊണ്ട് വരുകയും അതോടെ ഈ എ ഐ പ്രാബല്യത്തിൽ മുഴുവൻ മൊത്തമായി പ്രാബല്യത്തിൽ വന്ന് കഴിയുമ്പഴ്ത്തേക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടെക്നോളോജിക്കൽ വളർച്ചകൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്ത് ഈ ലോകത്ത് തന്നെ സംഭവിക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ ഈ ഇതുവരെ ഇതുവരെ നമ്മൾ ഉപയോഗിച്ച ടെക്നോളോജിയോ രീതികളോ ഒന്നും ആയിരിക്കത്തില്ല ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് കാലത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾ പ്രതീഷിക്കാത്ത അത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായി ഈ ലോകം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുക ആണ് അതിൽ അത് കാരണം നമ്മൾ നമ്മളെ കൊണ്ട് നമുക്ക് ഇനി മുന്നോട്ട് വരുന്ന കാലത്തിൽ ഈ ടെക്നോളജി എവിടെച്ചെല്ലും എന്ന് ഉള്ളതിൽ ഒരു പിടിയില്ല അതല്ല ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം ജനിക്കാൻ പോകുന്ന കുട്ടികളേത്തന്നെ ബീറ്റാ ജനറേഷൻ കുട്ടികൾ എന്നാണ് വിളിക്കപ്പെടാൻ പോകുന്നത് ഈ ബീറ്റാ ജനെറേഷനിൽ വരുന്ന കുട്ടികളാണേൽ ഈ എ ഐ ജനറേഷൻലേ ഫസ്റ്റ് ജൻ കുട്ടികളായി മാറാൻ പോകുന്നത് ഇവർ ഈ ഈസ് ഈ കാലത്തിൽ വളരെ അധികം ടെക്നോളോജിക്കൽ ഉപയോഗിച്ച് പരിചയം വരാൻ പോകുന്ന ഒരു തലമുറയായി മാറുവേം ഇവരെ ടെക്നോളജി എ ഐ തലമുറ എന്നും ഭാവീലറിയപ്പെടാൻ ഉള്ള സാദ്ധ്യതകൾ കൂടുന്നു വളരെ അധികം കൂടുതലാണ്